ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതല് ഇൻസ്റ്റാഗ്രാമ് വാട്സ്ആപ്പ് ഫേസ്ബുക് പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ ഗെയിമിങ് ആപ്പുകൾ ഒക്കെയാണ് കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം നമുക്ക് ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റും എന്ത് കാര്യങ്ങളും നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും എവിടുന്ന് എന്ത് കാര്യം ആണേൽ എന്തിനെ കുറിച്ചും നമുക്ക് അറിയാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സന്ദേശം അയക്കണേൽ നമുക്ക് ഈ പിന്നെ മെസ്സേജ് ചെയ്യാൻ പറ്റും വാട്ട്സ്ആപ്പിലും ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാം ടെക്സ്റ്റും ചെയ്യാം പിന്നെ എഫ് ബി യിലും ചെയ്യാം പിന്നെ ന്യൂസുകള് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതൊക്കെ നല്ല വശങ്ങളാണ് പിന്നെ പൈസ എത്ര ദൂരെന്ന് വേണേലും നമുക്ക് പൈസ ഇട്ട് കൊടുക്കാൻ പറ്റും എത്ര ദൂരെ എവിടെ ഉള്ള ആൾക്ക് വേണമെങ്കിലും നമുക്ക് പൈസ ഇട്ടു കൊടുക്കാൻ പറ്റും പക്ഷെ ഒരു മോശമായ വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ചെറിയ മക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും അഡിക്ട് ആയിപോകും വഴി തെറ്റുന്നതിന് ഏറ്റവും മുന്നില് അവർക്ക് സാധ്യത ഉള്ളൊരു മാധ്യമമാണ് സ്മാർട്ട് ഫോണുകൾ അതില് കിട്ടാത്തത് ആയിട്ട് ഒന്നുമില്ല നമുക്ക് ഗെയിം അഡിക്ട് ആയി പോകുന്ന മക്കള് അതേപോലെത്തന്നെ പല ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഈ ഫോണുകള് ഒരു കാര്യ കാരണം ആകുന്നുണ്ട്